സാർ എനിക്ക് ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കണമായിരുന്നേ അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമായിരുന്നു പക്ഷെ ഞാൻ ഇനി സ്ഥലത്തില്ലാത്തതിനാൽ ഫിസിക്കൽ രേഖകളൊന്നും കൊടുക്കുവാൻ സാധിക്കത്തില്ല അപ്പം ഞാൻ ഒരാളുടെ സഹായം തേടുകയാണ് അപ്പം എൻ്റെ എൻ്റെ കാര്യം അറിഞ്ഞല്ലോ അപ്പം എനിക്കിപ്പം സാറെ എൻ്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം ഡിജിലോക്കറിൽ നിന്ന് എനിക്കൊരു അക്കാഡമിക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് തരാമോ എങ്കിൽ എനിക്കത് പെട്ടെന്നുതന്നെ അപേക്ഷ സമർപ്പിക്കാമായിരുന്നു അപ്പോൾ താങ്കളുടെ വിശദീകരണം എനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചുതരുമെന്ന് അപേക്ഷിക്കുന്നു